കോഴികളെ വളർത്തുന്നേതിനെ കുറിച്ചു കോഴികൾക്ക് തൂക്കം അതായത് തൂങ്ങി നിൽക്കുന്ന ഒരു ഇത് ദേഹം മുഴുവൻ പനി വരുന്നു ഇപ്പം സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നത് വെള്ളത്തിൽ കുളിപ്പിക്കും ആ ശരീരം ഒന്ന് തണിപ്പിക്കുന്നു പിന്നെ നമ്മൾ മൃഗാശുപത്രിയിൽ ചെന്നു മരുന്നൊക്കെ മേടിച്ചു കൊടുത്ത് അത് രണ്ടു മൂന്ന് നേരം കൊടുക്കുമ്പോൾ ആൻ്റിബയോട്ടിക്ക് കൊടുക്കുമ്പോൾ അത് നേരെയാകുന്നു പിന്നെ ചില വഴികൾക്ക് തലയിൽ ചിറകിൻ്റെ അവിടെയെക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ വരുന്നു അതിന് ബോറിക്ക് ആസിഡ് മേടിച്ചു വെള്ളത്തിൽ കലക്കി പഞ്ഞിയിൽ മുക്കി അതൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നു കണ്ണ് വഴിപ്പ് എന്നിവ വരുന്നുണ്ട് കണ്ണ് വഴുക്കുമ്പോഴും ഈ ബോറിക് ആസിഡ് വെള്ളം വെള്ളത്തിൽ കലക്കി പഞ്ഞിയിൽ മുക്കി അത് മൂന്ന് നേരമായിട്ട് അത് ക്ലീൻ ചെയ്തു വിടണം പിന്നെ ചില കോഴികൾക്ക് ഇങ്ങനെ വായ ഇങ്ങനെ തുറക്കുക അടക്കുക ഈ ശ്വാസത്തിൻ്റെ അത് ഇപ്പം ഈ മൃഗാശുപത്രി പോകാതെ മരുന്ന് മേടിക്കുക എന്നു പറയുമ്പോൾ നമ്മൾ വീട്ടിൽ എന്നെ സംബന്ധിച്ചു ഞാൻ ആര്യവേപ്പിൻ്റെ ഇല വെളുത്തുള്ളി ചുമന്നുള്ളി അൽപ്പം ഈ പനിക്കൂർക്ക തുളസി ഇല എന്നിവ മഞ്ഞൾ പച്ച മഞ്ഞൾ എന്നിവയൊക്കെ സമം ചേർത്തു അരച്ചു ഉരുട്ടി വായിലേക്കൊക്കെ ആക്കി കൊടുക്കുന്ന അപ്പം ഈ പനിയൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ അത് മാറുന്നതാണ് പിന്നെ പലതരം രോഗങ്ങൾ ഉണ്ട് പൂട പൊഴിച്ചിൽ അതിനൊക്കെ നമ്മൾ ഒരു വൈദ്യസഹായം ഹോസ്പിറ്റലിൽ ചെല്ലുകയും അതിനെ കാണിക്കുകയും വേണ്ട ട്രീറ്റ്മെൻറ് നടത്തുകയും ചെയ്യുന്നു പിന്നെ ആരോഗ്യ പരിപാലനം എന്നു പറയുമ്പം ഫുഡ് നല്ല രീതിയിൽ കൊടുക്കുക പച്ചിലകളൊക്കെ ധാരാളം കഴിക്കാൻ ഇടുക പിന്നെ കാൽസ്യം പൗഡറ് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് മേടിച്ചു കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി വയ്ക്കുക പിന്നെ അതേപോലെ അവർക്ക് അയൺ ടാബ്ലറ്റും അങ്ങനെയുള്ളതെല്ലാം കിട്ടും ഇപ്പം വളരെ സുലഭമായ രീതിയിൽ നല്ലയിനം മരുന്നുകളൊക്കെ ലഭ്യമാണ് അപ്പം അതൊക്കെ മേടിച്ചു അവർ പറയുന്ന രീതിയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യുകയും അങ്ങനെ പരിപാലിച്ചു എടുക്കാന്നതാണ് ധാരാളം തീറ്റയും വെള്ളം ധാരാളം കൊടുക്കണം കുടിക്കാൻ ആ രീതിയിലൊക്കെയാണ് ഞാന് പരിപാലിക്കുന്നത്